ഒരു ഗാനാലാപന പരിപാടിക്ക് ഒരുങ്ങുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഏത് പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിന് പോവുമ്പോൾ നമ്മൾ ഏതൊക്കെ പാട്ടാണ് പാടാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഏത് പാട്ട് എങ്ങനത്തെ ടൈപ്പ് പാട്ടാണ് നമ്മൾ പാടേണ്ടത് എന്നൊക്കെ അ അന്വേഷിച്ചിട്ട് പാട്ടുകൾ ഏത് ഏത് പാട്ടാണ് നമ്മൾ പാടേണ്ടതെന്ന് വെച്ചാൽ എഴുതി വെച്ച് അതിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഗതികൾ അത് പിച്ച് ശ്രുതി ഇതൊക്കെ എവിടെ എന്തൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ

എങ്ങ എങ്ങനെയൊക്കെ ആദ്യം നോക്കി പിന്നെ ഒന്ന് മിറർ റിഹേസൽ നടത്തി പിന്നെ ഓ ഓ ആ പാട്ട് ഞാൻ പാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒന്ന് പാ സ്വയം വിലയിരുത്തി ഞാൻ തന്നെ എൻ്റെ ഫോണിൽ റെക്കോഡ് ഒക്കെ ചെയ്ത് അതിങ്ങനെ വോയിസ് റെക്കോഡ് കേട്ട് എനിക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവുന്ന വിധത്തിൽ ഞാൻ അത് പാടി പാടി ശരി അത് സെറ്റ് ആക്കി വയ്ക്കാൻ ശ്രമിക്കും പോരാത്തതിന് അ ആ പാട്ട് കാണാതെ നോക്കി പാടുന്നതിനുപരി ആ പാട്ട് എങ്ങനെ നമുക്ക് കാണാതെ അതിൻ്റെ ഓരോ സ്തലഗതികളും അതും ഇതും ഒക്കെ എല്ലാം എങ്ങനെ നമുക്ക് പാടാം പറ്റുമെന്ന് സ്വയം ഒന്ന് ശ്രമിച്ച് നോക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റെക്കോഡിങ്ങിന് പോവുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് സൗണ്ടിനൊരു ക്രാക്ക് വരുക അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനത്തെ ഫുഡ് എല്ലാം ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു റെക്കോഡിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുപോവേണ്ട സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഒന്ന് സെറ്റ് ആക്കുക അതായത് വെള്ളം തൊണ്ട ഇടറിപോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അതുപോലത്തെയൊക്കെ കൊണ്ടു സെറ്റ് ഒരു സെറ്റ് ആക്കി വയ്ക്കാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാൻ തന്നെ ഒരു പാട്ട് പാടാൻ പോവുമ്പോൾ നമ്മൾ അതിൽ പാട്ടിൻ്റെ എല്ലാ വിധങ്ങളും എല്ലാ വശങ്ങളും എല്ലാ ഭാഗത്തുനിന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് പഠിച്ചെടുക്കും